നമുക്ക് ഈ മത്സ്യ ബന്ധനത്തിൻ്റെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എളുപ്പം അല്ല കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത്

പിടിച്ചു വന്ന മത്സ്യം ചീഞ്ഞ് പോകാതെ നല്ല രീതിക്ക് വിൽക്കാൻ പറ്റുന്ന അതായത് നല്ല വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന രീതിയിൽ ഏജന്റ് ഏജന്റുമാരെ ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് ആയിട്ട് അവർക്ക് കച്ചവടം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അങ്ങനത്തെ സെറ്റപ്പ് ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് മണ്ണെണ്ണയ്ക്കും ഡീസ് മറ്റേ അവരെ വണ്ടിയിൽ ആവശ്യമായ ഡീസൽ അടിയ്ക്കാനുള്ള അങ്ങനത്തതിനൊക്കെ കുറച്ച് റേറ്റ് കമ്മി ആക്കി കൊടുക്കുക ബാക്കി ഉള്ളവരെ വെച്ചിട്ട് ടേക്സോ അങ്ങനെ എന്തേലും കമ്മി ആക്കി കൊടുക്കുക അങ്ങനത്തെ പല കാര്യങ്ങൾ നമുക്ക് സർക്കാരിന് അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ നമ്മുടെ ഈ അവർക്ക് എൻജിൻ ടേക്സ് എന്താ പറയാ മത്സ്യ ബന്ധനത്തിൻ്റെ ടേക്സും കാര്യങ്ങളും ഒക്കെ റെഡി ആക്കി കൊടുക്കുക പിന്നെ അവരുടെ ജീവിത രീതി കുറച്ചും കൂടെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ കടലോരങ്ങളിൽ നല്ല രീതിയിലുള്ള കടൽ ഭിത്തികൾ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി കൊടുക്കുക അങ്ങനെ പിന്നെ നമുക്ക് നോക്കുവാണെന്ന് പറഞ്ഞാൽ അവരെ ബോട്ടും കാര്യങ്ങൾക്കും ഒക്കെ സബ്സിഡി കൊടുക്കുക അങ്ങിനെ ഉള്ള പല രീതികളിലുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത് ആ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ് ചെയ്യാൻ പറ്റുന്നത്